പഠിക്കുന്നതിൻ്റെ കൂടെയൊന്നും പാട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നൂല്ല അത് പഠിക്കേണ്ട കാര്യം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം ഇത് നമ്മുടെ പ്രൊഫഷൻ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ പഠിക്കേണ്ടത് നമ്മൾ എന്തായാലും പഠിക്കണം ഇത് നമ്മൾ ഇത് നമ്മൾ കേട്ട് കേട്ട് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഇത് നമ്മൾ അത് നമ്മൾ രണ്ടും നമ്മൾ ഒരേ പോലെ നമ്മൾ കാണാണമെങ്കിൽ പെട്ടന്ന് തന്നെ അതിൽ രണ്ടിലും വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളോ സ്കൂൾ കാര്യങ്ങളിൽ പാട്ട് ഒരിക്കലും അഫക്ട് ചെയ്തിട്ടില്ല ഇതുവരെ എനിക്ക് എനിക്ക് പാട്ട് വേറെ പാടുന്നതിന് വേറെ താല്പര്യം പഠിക്കുന്നതിന് വേറെ താല്പര്യം പാട്ടു കാരണം ഒരിക്കലും എൻ്റെ വീട്ടുകാർ എന്നെ കുറ്റം പറഞ്ഞിട്ടോ അങ്ങനെയൊന്നുമില്ല പഠിപ്പിൽ ഉഴപ്പി കളിക്കുക അങ്ങനത്തെ ഇതൊന്നുമില്ലാ പഠിക്കേണ്ട ടൈമിൽ പഠിക്കും പാട്ടു പാടേണ്ട ടൈമിൽ പാട്ടുപാടും അത് പഠിക്കേണ്ട ടൈമിൽ പഠിക്കും അങ്ങനെയാണ് അതിൽ എൻ്റെ വീട്ടുകാർ ഒരിക്കലും എന്നെ കുറ്റം പറയുകയോ പാട്ടു കാരണമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊന്നും പറയൊന്നും ചെയ്തിട്ടില്ല പഠിപ്പിൽ എനിക്ക് അതിൻ്റെതായ എന്നെ കൊണ്ട് പറ്റുന്നത്രയുള്ള മാർക്കും കാര്യങ്ങളും ഒക്കെ എനിക്കുണ്ട് പാട്ടിൻ്റെ കാര്യത്തിൽ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാനെൻ്റെ പരമാവധി തന്നെ ഞാൻ ശ്രമിക്കുന്നുമുണ്ട് രണ്ടും ഞാൻ ഒരുപോലെയായിട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപോലെ കൊണ്ടു പോകുന്നു